ഞാനും കൂട്ടുകാരൊക്കെ കൂടിയിട്ടാണ് ഒരു മല കയറാൻ പോയിട്ടുണ്ടായിരുന്നത് അതും പെട്ടന്ന് യാദൃശ്ചികമായിട്ടാണ് പോയത് പെട്ടന്ന് ഒരു ദിവസം ലീവ് എല്ലാവരും കണ്ടുമുട്ടിയപ്പോൾ നമുക്കെന്നാൽ ഒന്ന് ട്രിപ്പ് പോകാമെന്നുള്ള രീതിയിൽ പെട്ടന്ന് പോയതാണ് ഒട്ടും പ്ലാന്ഡ് അല്ലായിരുന്നു അപ്പോൾ നമ്മൾ മല കയറാൻ പോയി മല കയറാൻ പോകുമ്പോൾ നമുക്കതിൻ്റെതായിട്ടുള്ള എക്വിപ്പ്മെന്റ് സോ ടൂൾസോ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് മല കയറാൻ പോകുകയാണ് നമ്മുടെ കയ്യിൽ ഒരു കത്തി പോലുമില്ലാണ്ടാണ് നമ്മൾ ജസ്റ്റ് കയറുക എത്തിയപ്പോൾ കയറി നോക്കാമെന്നുള്ളൊരു ഇതിലും കൂടി പോയതാണ് അപ്പോൾ കയറി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കയറാൻ അതുപോലെ അവിടെ എത്തി അവിടെ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് വലിയൊരു മലയാണ് നമ്മളത് അവിടെ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് പെറുക്കിയ കുറച്ച് വടികളും കമ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് നമ്മളും വഴിയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് പക്ഷെ വഴികളൊക്കെ മൂടി കിടക്കുകയായിരുന്നു മഴയൊക്കെ വന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള കാടും പൊന്തയൊക്കെ വളർന്നു വഴികളൊന്നും കാണാത്ത രീതിയിലായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിത്തെളിച്ചിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ അപ്പോൾ നമ്മുടെ കയ്യിലാകെയുള്ളത് കമ്പാണ് കമ്പും പിന്നെ അവിടെ നിന്ന് കുറച്ച് മരക്കഷ്ണങ്ങൾ കിട്ടിയിരുന്നു അതുകൊണ്ട് വഴി വെട്ടിത്തെളിച്ച് പോകുമ്പോഴാണ് ഇടയിൽ ഒരു പാമ്പിനെ കണ്ടത് പാമ്പിനെ കാണുകയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടു എല്ലാവരും പരിഭ്രമത്തിൽ പല സ്ഥലത്തേക്കായിട്ട് ചിതറി ഓടി കാരണം വലിയൊരു പെരുമ്പാമ്പായിരുന്നു അത് നമുക്ക് ഭയങ്കര പേടിയും എന്താ ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല എല്ലാവരും ചിതറി ഓടുകയായിരുന്നു ഓടി അവിടെയാണെങ്കിൽ റേഞ്ചും ഉണ്ടായിരുന്നില്ല പെട്ടന്നോടി കാരണം അത്രയും വലിയ പാമ്പിനെ അവിടെ കണ്ടപ്പോൾ എല്ലാവരും ഓടി ഒരാൾ താഴത്തേക്കോടി ഒരാൾ വേറെ കിട്ടിയ വഴിയിൽക്കൂടി ഓടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി പിന്നെ ഈ മല ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കൊന്നും വഴി ഏതാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല പിന്നെ വഴി തൊള്ളയിട്ടിട്ട് നമ്മൾ ശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു പറയലും ഇതൊക്കെയായിട്ട് ഒരുപാട് നേരം അലറി വിളിച്ചിട്ടൊക്കെയാണ് എല്ലാവരേയും കണ്ടു മുട്ടിയത് അതുകൊണ്ട് തന്നെ വളരെ ഒട്ടും പ്ലാൻഡ് അല്ലാണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എക്വിപ്പ്മെന്റ് സൊന്നും ഇല്ലാണ്ട് പോകുന്നതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് മല കയറുകയെന്നുള്ളത് അത് ഇങ്ങനെയുള്ള വല്ല വന്യ ജീവികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക്കാണ് അതും മലയിലേക്ക് പോകുമ്പോൾ അതിനായിട്ടുള്ള എക്വിപ്പ്മെന്റ് സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വേണമെന്നുള്ളതാണ് അതിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പ്രധാന പാഠമെന്ന് പറയുന്നത്